ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ പല വിധത്തിലുള്ള ഗതാഗത സൗകര്യങ്ങളുണ്ട് നമുക്ക് വ്യോമ മാർഗ്ഗവാണേൽ കടൽ മാർഗ്ഗമാണേൽ കര മാർഗ്ഗമാണേൽ അങ്ങനെ പല സംവിധാനങ്ങളുണ്ട് പക്ഷേ നമ്മൾക്ക് ഇത് എല്ലാം മനുഷ്യന് ഏറ്റോം കൂടുതൽ നമുക്ക് എത്രയും പെട്ടന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തുകാന്നുള്ളതാണ് ഈ മാർഗ്ഗങ്ങൾ കൊണ്ടുള്ള നേട്ടങ്ങൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിന് നേരിടുന്ന വെല്ലുവിളികളാണ് ഇപ്പോൾ ഏറ്റോം മുഖ്യമായിട്ടുള്ളത് കാരണം നമ്മൾ ഇന്ന് ഒരു റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുണ്ടും കുഴിയും നിറഞ്ഞ വഴികളാണ് പല സ്ഥലത്തും പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ട് വരുന്നത് രാവിലെ നമ്മൾ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ വണ്ടിയായിട്ട് ഇറങ്ങിയാൽ ഇപ്പോഴൊരു കാറാണെങ്കിൽ പല സ്ഥലങ്ങളിലും ബ്ലോക്ക് അത് നമ്മളെ ഏറ്റോം കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നൊരു കാര്യമാണ് നമ്മളീ തിരക്ക് പിടിച്ച റോഡുകളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നാല് വഴി കൂടേം വണ്ടികൾ വരികേം എല്ലാ സ്ഥലങ്ങളിലും ബ്ലോക്കാക്കി നിൽക്കുന്ന സമയത്ത് പോലീ ടു വിലറാണെങ്കിൽ നമുക്കൊക്കെ ഇടേൽ കൂടെ തള്ളി കയറി ഇടിച്ച് അങ്ങനെ നമുക്ക് പോയി രക്ഷപ്പെടാം പക്ഷേ നമ്മളിപ്പം ഫോർ വീലറായിട്ടുള്ള കാറിലൊക്കെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമുക്ക് ആ ബ്ലോക്ക് തീരുന്നടം വരെ നമ്മളവിടെ വെയിറ്റ് ചെയ്ത നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അരമണിക്കൂറ് മുൻപേ എത്തണമെങ്കിൽ ഇവിടെ നിന്ന് ഈ ബ്ലോക്ക് തീരണമെങ്കിൽ മുക്കാൽ മണിക്കൂറോളമുണ്ട് ഇത് നമ്മുടെയീ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലേക്ക് നമ്മൾ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല സ്ഥലത്തും നമ്മളീ ബ്ലോക്കെന്നുള്ള ഭീഷണി നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കാൻ അത്കൊണ്ട് എത്രയും പെട്ടന്ന് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്ത് മനുഷ്യൻ്റെ ഈ ഗതാഗത കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെ അത്യാവശ്യമായ ഘടകമാണ് കാരണം പല റോഡുകളും ഇന്നും ശോചനാവസ്ഥ നേരിടുന്നതാണ് പല സ്ഥലത്തും കുണ്ടും കുഴികളാണ് കട്ടറുകളുണ്ട് മഴയൊക്കെ പിടിച്ച് വെള്ളം കയറി കിടന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കുഴി പോലും കാണത്തില്ല പലയിടത്തും അപകട ഭീഷണികൾ നേരിടുന്നുണ്ട് അപ്പം റോഡുകൾ നന്നാക്കുക എന്നിട്ട് എല്ലാ വഴിക്കൂടേം വണ്ടികളെ വിടാനുള്ള ഒരു മാർഗ്ഗങ്ങളും കൂടി ക്രമീകരിച്ചാൽ ഏറ്റവും നന്നായിരിക്കും